എൻ്റെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കൂളറാണ് കൂളർ ഇപ്പോൾ ഞാൻ ആദ്യം വീട്ടില് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫാൻ ആയിരുന്നു അപ്പോൾ ടേബിൾ ഫാൻ ഉണ്ടായിരുന്നു സീലിംഗ് ഫാൻ പിന്നെ വാൾ ഫാൻ അങ്ങനത്ത കുറേ ഫാനുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിന്ന് എന്താ പറയുക ഈ വേനൽക്കാലത്തൊക്കെയെന്ന് പറയുമ്പോൾ ചൂട് കാറ്റാണ് ഇതാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് കാറ്റ് വലിയ കാര്യായിട്ട് കിട്ടാതെ വന്നപ്പോൾ നമ്മൾ എ സി വാങ്ങാമെന്നുള്ളൊരു ഇതിലേക്ക് എത്തിയിരുന്നു അപ്പോൾ എ സി വാങ്ങാനായിരുന്നു രണ്ടാമത്തെ പ്ലാൻ അപ്പോൾ എ സി ഒക്കെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എ സിനെക്കാളും എന്തുകൊണ്ടും ബെറ്റർ കൂളർ ആണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങള് കൂളറ് വീട്ടിലേക്ക് മേടിക്കുന്നത് അപ്പോൾ മേടിച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നല്ല തണുപ്പാണ് ഇതിൻ്റെ ഇതിന് അപ്പോൾ ഇപ്പോൾ എന്താ പറയുക ചൂടുള്ള സമയത്താണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തണുപ്പ് കിട്ടുന്നതുകൊണ്ട് നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എന്തു കൊണ്ടും കറണ്ട് ബില്ലൊക്കെ നല്ല കുറവാണ് പിന്നെ നമുക്ക് ഇതെവിടെ വേണേലും എടുത്തുകൊണ്ട് നടക്കാനൊക്കെ എളുപ്പമൊക്കെയാണ് പിന്നെ ചീപ്പ് റേറ്റും അത്യാവശ്യം എന്താ പറയുക എ സിനെയൊക്കെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ റേറ്റിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ പറയുക ഇതിനകത്ത് ഇടയ്ക്കിടക്ക് നമുക്ക് അങ്ങനെ എന്താ പറയുക